ഹലോ ഹലോ ആഹ് പറഞ്ഞോളൂ ആഹ് ഓക്കെ ആഹ് പറഞ്ഞോളൂ ആഹ് ഓക്കെ രണ്ട് ദിവസമേയായിട്ടുള്ളു തുടങ്ങിയിട്ട് ആഹ് ഓക്കെ ഓക്കെ വീട്ടിൽ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ ആഹ് ഓക്കേ എന്തേലും ഗുളിക എന്തേലും കഴിച്ചിരുന്നോ എത്രയെണ്ണം കഴിച്ചു ആഹ് ഓക്കെ വീട്ടിൽ വേറെ ഗുളിക ഇരിപ്പുണ്ടോ പാരസെറ്റാമോള് ആഹ് ഓക്കെ ഒരു മൂന്ന് നേരം ഒന്നുകൂ ടെ കഴിച്ച് നോക്കൂ എന്നിട്ട് എന്തേലും കുറവ് ഉണ്ടോയെന്ന് നോക്കീട്ട് ഒന്ന് പറയാമോ ഓക്കെ ഭക്ഷണത്തിന് ശേഷം മാത്രമേ അത് കഴിക്കാവുള്ളൂ കേട്ടോ പിന്നെ എന്നിട്ടും കുറയുന്നില്ലെങ്കിൽ നമുക്കൊന്ന് ഹോസ്പിറ്റൽ വരെ വരേണ്ടി വരും നമുക്കൊന്ന് ബ്ലഡ്ഡ് ടെസ്റ്റ് ചെയ്യണം പിന്നെ യൂറിനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കേ ഓക്കെ നാളെ നമുക്ക് കുറവില്ലെങ്കിൽ വന്നാൽ മതി വയറുവേദന അങ്ങനെ എന്തേലും പ്രശ്നം ഉണ്ടോ ഓക്കെ മറ്റേ തൈറോയ്ഡ് അങ്ങനെയെന്തെങ്കിലും കുഴപ്പം ഇതിനു മുൻപ് ഉണ്ടായിരുന്നോ ആദ്യമായിട്ടാണല്ലേ ഓക്കെ ഓക്കേ പിന്നേ വേറെ ആർക്കും ഇങ്ങനെ ഇതിന് മുമ്പേ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നോ അമ്മ പാരസെറ്റാമോള് മാത്രമേ അതോ എന്തേലും ഡോക്ടറെ കാണുകയോ എന്തേലും ചെയ്തിരുന്നോ ഓക്കെ അമ്മയ്ക്ക് വേറെ എന്തെങ്കിലും മരുന്ന് അവിടുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നോ ഓക്കെ ഓക്കെ നോക്ക് എന്തേലും കുറവുണ്ടോയെന്ന് നോക്കീട്ട് നമുക്ക് എന്തായാലും ബാക്കി ചെയ്യാൻ പറ്റുകയുളളൂ പാരസെറ്റാമോൾ എന്തായാലും ഭക്ഷണത്തിനു ശേഷം മൂന്നുനേരം ഒന്നു കഴിക്കൂ അതു കഴിഞ്ഞിട്ട് വന്നാൽ മതി പിന്നെ വേറാരുമായിട്ടും അങ്ങനെ ഓവറ് ഇതാക്കാൻ നിൽക്കേണ്ട സമ്പർക്കം ഒന്നും വേണ്ട കേട്ടോ ഒറ്റയ്ക്ക് ഒരു റൂമിൽ ഇരുന്നാൽ മതി ഓക്കെ പകർച്ചവ്യാധി